അതെ ഈ കമ്പ്യൂട്ടർ പഠിക്കുന്നത് അതിന്റെ പ്രയോഗവും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അടിസ്ഥാന പഠിക്കാനുള്ള ഒരു അടിസ്ഥാനവിഷയം ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പത്താം ക്ലാസ് വരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അത് പോരാ കമ്പ്യൂട്ടറ് കാരണം കാ നമ്മുടെ കാലം മാറി ഇപ്പം എല്ലാം കമ്പ്യൂട്ടറ് യുഗമാണ് ഈ ചെറിയ ഒരു കുഞ്ഞിന്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് അറിയാത്ത കാര്യങ്ങള് ഒന്നുമില്ല അപ്പം എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് മാറുമ്പം എല്ലാം അതായത് കണ്ടോൾ പണ്ടൊക്കെ നമുക്ക് ഒരു ഫോ പൈസയ്ക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഓടിനടക്കും ഇപ്പോൾ നമുക്ക് എവിടെയിരിക്കുന്ന ആൾക്ക് വേണമെങ്കിലും നമുക്ക് നിഷ്പ്രയാസം പൈസ ഫോൺ പേ ഗൂഗിൾ പേ യൊക്കെ വഴി അയച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ സാങ്കേതിവിദ്യയിൽ വന്ന മാറ്റമാണ് ഇതിനൊക്കെ കാരണം ഇപ്പം നമ്മുടെ എളുപ്പമായി നമ്മുടെ അങ്ങനത്തെയുള്ള പണികളൊക്കെ നമുക്ക് എളുപ്പമായി അപ്പം അത് എല്ലാവരെയും എല്ലാവരിലും എത്തിക്കുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാവർക്കും അത് ഉപയോഗപ്രദമാകണം അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് അപ്പോൾ നമ്മള് ചെറിയ ക്ലാസ്സിൽ തൊട്ട് അല്ലെങ്കിൽ മുതിർന്നവർക്ക് പറഞ്ഞുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ അവർക്ക് എക്സ്ട്രാ ക്ലാസ്സ് ഒക്കെ എടുത്ത് അതിന്റെ ഉപയോഗം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതൊക്കെ നല്ലൊരു എളുപ്പമല്ലേ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ